ഇപ്പോൾ പല കാലാവസ്ഥകളിലും വളരുന്ന ചെടികളെ സംരക്ഷിക്കാൻ നമ്മൾ കൂടുതലായിട്ടും മുൻകരുതൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യ സമയത്ത് വെള്ളം കിട്ടുന്നുണ്ടോയെന്ന് നമുക്ക് നോ നമ്മൾ നോക്കുക അപ്പം വേനൽ കാലങ്ങളിൽ ചിലപ്പം ആ ചെടിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ അതിന് കൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വളം അതായത് ഇപ്പം നമ്മൾ കൂടുതലായിട്ടും എല്ലാ കാലാവസ്ഥകളിലും വരുന്ന വളരുന്ന ചെടികൾക്ക് കൂടുതലായിട്ട് നമ്മൾ അതായത് കീടനാശിനി ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ചാണകം ഇപ്പോൾ ചാണകം കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്താൽ നല്ല രീതിയിലുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ ആ ചെടിക്ക് ഉണ്ടാകുന്നതാണ് അപ്പം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മള ചെടി നല്ലവണ്ണം വളരാനും എല്ലാ എന്താ പറ നല്ല ഇപ്പ പൂവിടാനൊക്കെ നമുക്ക് കിട്ടുന്നതാണ്